സാങ്കേതിക വിദ്യയുടെയും ഇൻറ്റർനെറ്റിൻ്റെയും വളർച്ച അത് മലയാളികൾക്ക് ഒരുപാട് നല്ല രീതിയിൽ ഒരുപാട് നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ആവശ്യകരമായ കാര്യമാണ് ഇൻറ്റർനെറ്റ് എന്നുള്ളത് അതില്ലാതെ ആരും ജീവിക്കില്ല അത് ഉദാഹരണത്തിന് ഞാൻ തന്നെ ആണെങ്കിലും ഇപ്പോൾ ഇൻറ്റർനെറ്റ് ഇല്ലാതെ അതായത് എൻ്റെ മൊബൈൽ ഫോണ് എൻ്റെ ഈ മൊബൈൽ ഫോണിൽ ഒരു ദിവസം റീചാർജ് ഇല്ലെങ്കിൽ ഞാൻ എത്ര മാത്രം ബോറടിക്കുന്നുവോ അതുപോലെയാണ് ഈ മലയാളികൾ അതായത് അവർക്ക് ഈ ഇൻറ്റർനെറ്റ് കൊണ്ട് വന്നതിലുള്ള ആ ഒരു അത്യാവശ്യം ഇപ്പോൾ ഇൻറ്റർവെറ്റ് ഇൻറ്റർനെറ്റ് ഇല്ലാതെ ഒരുപാട് ആൾക്കാർ പണ്ട് കാലത്ത് ജീവിച്ചിട്ടുണ്ട് പക്ഷെ പണ്ടത്തെക്കാലത്തെ പോലെ അവരുടെ ആ ഒരു ഇത് നമ്മൾക്ക് കിട്ടണമെന്നില്ല നമ്മൾ ഇപ്പോൾ ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ വേറൊരു രീതിയിൽ ചിന്തിക്കുന്നവരാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് ഒരിക്കലും ഞങ്ങളെ കൊണ്ട് അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് ഇൻറ്റർനെറ്റ് ഇല്ലാതെ ജീവിക്കുക എന്നുള്ളത് ഇൻ്റർനെറ്റ് കാരണം ഈ ഇൻറ്റർനെറ്റ് കാരണം ഞങ്ങൾക്ക് ഒരുപാട് വളർച്ച ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഈ പാവങ്ങളെ സഹായിക്കുക എന്നുള്ളത് ഒരുപാട് ഞങ്ങൾക്കറിയില്ലല്ലോ മറ്റ് അന്യനാട്ടിൽ എന്തൊക്കെ നടക്കുന്നു അവരുടെ ഈ അവർ ആരൊക്കെ എന്തെല്ലാം എന്തെക്കെയോ സംഭവങ്ങൾ ഞങ്ങൾ അറിയുന്നുണ്ട് ഇൻറ്റർനെറ്റ് വഴി ഞങ്ങൾക്ക് എല്ലാം മാധ്യമങ്ങളിലൂടെ ഞങ്ങൾക്കെല്ലാം കാണാൻ പറ്റുന്നു എല്ലാം കേൾക്കാൻ പറ്റുന്നു എല്ലാം ഈ ഇൻറ്റർനെറ്റ് കാരണമാണ് അപ്പോൾ ഒരുപാട് വളർച്ചക്ക് കാരണമാണ് ഈ ഇൻറ്റർനെറ്റ് എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ മലയാള ഭാഷയെ മലയാളികൾക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വച്ചാൽ ഈ മീഡിയ എന്നുള്ളത് ഈ മലയാളികൾക്ക് പൊതുവെ മലയാളികളെ മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷെ മലയാളികളെ മാത്രമേ എനിക്ക് അറിയുകയുള്ളു മറ്റുള്ള നാട്ടുകാരും അവരുടെ ഇതൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടുവന്നത് ഇതുവരെ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ മാധ്യമങ്ങളാണ് ജനങ്ങളെ നല്ല രീതിയിൽ വഷളാക്കി കൊണ്ടിരിക്കുന്നത് എന്നെ പോലും എന്നെ പോലും വല്ലാത്ത രീതിയിൽ മാധ്യമങ്ങൾ കാരണം അതായത് ഇൻറ്റർനെറ്റ് കാരണം ഒരുപാട് മോശമായ രീതിയിലുള്ള വീഡിയോസ് ഒക്കെ കണ്ട് ലയിച്ചു പോവുന്നു അതിലേക്ക് അത് ഒരു ലഹരിയായി മാറി പഠിക്കാനുള്ള ചിന്ത നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ചിന്തകൾ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാനുള്ള ആ ഒരു ചിന്തകളൊക്കെ ഈ ഇൻറ്റർനെറ്റ് ഞങ്ങളെ തട്ടി എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ മലയാളികൾക്ക് എന്നല്ല ജനങ്ങൾക്ക് ഈയൊരു മാറ്റങ്ങൾ ഈ മോശമായ മാറ്റങ്ങളൊക്കെ ഇൻറ്റർനെറ്റ് വഴി വന്നിട്ടുണ്ട് പക്ഷെ അതിനപ്പുറം ഒരുപാട് ഗുണങ്ങളും ഇൻറ്റർനെറ്റ് മോശമായിട്ടും കാണാൻ പറ്റില്ല നന്മ ആയിട്ടും കാണാൻ പറ്റില്ല രണ്ടിനും ഇടയിലാണ് കാരണം മോശമായാൽ മോശവും നല്ലതായാൽ നല്ലതും ആണ് അതായത് ഇതിനെക്കുറിച്ചുള്ള മെറിറ്റസ് ആയ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ ഇൻറ്റർനെറ്റ് വന്നതിനനുസരിച്ച് ഞങ്ങളിപ്പോൾ അന്യനാട്ടിലുള്ള ഒരുപാട് പാവങ്ങൾ ഞങ്ങൾക്ക് ഈ ഇൻറ്റർനെറ്റ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ പാവങ്ങളെ ആരെയും ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഇൻറ്റർനെറ്റ് പ്രകാരം ആ നാട്ടുകാർ അവരുടെ പാവങ്ങളെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നു അതിങ്ങനെ ഷെയർ ചെയ്യുന്നു അപ്പോൾ ഈ ഇത് മറ്റുള്ള നാട്ടുകാരും പാവം ഈ നല്ല നല്ല മനസ്സിൻ്റെ ഉടമകളൊക്കെ ഇത് കാണുമ്പോൾ അവർക്ക് വല്ലാതെ സങ്കടമായ കാര്യങ്ങളാവുമ്പോൾ അവർ ഈ അവർക്ക് നല്ല സമ്പത്തുള്ളവരൊക്കെ ഇത് കാണുമ്പോൾ ഈ സമ്പന്നരായ ആൾക്കാരൊക്കെ എന്തു ചെയ്യുന്നു മാധ്യമങ്ങളിലൂടെ പറഞ്ഞു കൊണ്ട് ആ ആളുകളെ സഹായിക്കാൻ ഇത് പ്രേരിപ്പിക്കുന്നു ഈ മാധ്യമങ്ങൾ പ്രേരിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെയ്യാത്ത തെറ്റിന് ഇതിൻ്റെ ഡിമെറിറ്റസ് പറയുകയാണെങ്കിൽ ചെയ്യാത്ത തെറ്റിന് ഈ മാധ്യമങ്ങൾ കാരണം ഒരുപാട് ആൾക്കാർ കേസ് കേസ് എടുക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട് ജയിലിൽ പോവേണ്ടി വന്നിട്ടുണ്ട് മാധ്യമങ്ങൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി എന്തെങ്കിലും ഒരു കാര്യം ജസ്റ്റ് ചെറിയൊരു കാര്യം കണ്ടാൽ അത് ആരാണോ ചെയ്തത് അത് എങ്ങനെയാണോ ചെയ്തത് എന്ന് അറിയുന്നതിനു മുമ്പ് അതിനടുത്തുള്ളതാരാണോ അവനെ ഉദ്ദേശിച്ച് അവനെ ഇല്ലാത്തതു പറഞ്ഞ് ഒരുപാട് ദൂരം എത്തിച്ച് എല്ലാവരെയും അറിയിച്ച് കഴിയുന്നവരാണ് ഈ മാധ്യമങ്ങൾ അതുകൊണ്ടു തന്നെ മാധ്യമങ്ങളെ ആരും നല്ല രീതിയിൽ പ്രോൽസാഹിപ്പിക്കുകയും ചെയ്യരുത് നല്ല രീതിയിൽ മോശമായ രീതിയിൽ അവഗണിക്കാനും പാടില്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം